പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം കൂടുതൽ പ്രായോഗികവും സ്വതന്ത്ര്യത്തോടെ ചിന്തിക്കാനും സഹായിക്കുന്നതായിരിക്കണം

അവരുടെ അഭിനിവേശത്തിന് ഇത് ഉന്നയിക്കുന്നതുമായ കുറേ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ നമ്മളുടെ വിദ്യാഭാസ സ്ഥാപനങ്ങൾ പുരോഗമിക്കേണ്ടതാണ്